മൃഗങ്ങളെ എപ്പോഴും അതിൻ്റെ പ്രകൃതി ദത്തമായ രീതിയിൽ അതിനെ പ്രകൃതിയോട് ഇണക്കി വളർത്തുമ്പോൾ തന്നെയാണ് നമുക്കതിൽ നിന്ന് പരമാവധി ഫലഭൂയിഷ്ഠിത ലഭിക്കുന്നത് പ്രകൃതിയോട് ഇണക്കി മൃഗങ്ങളെ വളർത്തുമ്പോൾ നമുക്ക് ആ മൃഗങ്ങളെ വളർത്തുന്നതിനുള്ള ചിലവ് കുറയും പിന്നെ മൃഗങ്ങൾ നല്ല ആരോഗ്യത്തോട് കൂടിയും നല്ല ആദായം തരുന്ന രീതിക്കും വളരുകയും ചെയ്യും വളരെ ജൈവമായി മൃഗങ്ങളെ വളർത്തുക എന്നതിൽ പ്രധാനമായി വരുന്നത് നമുക്കതിൽ മാലിന്യങ്ങൾ ഒന്നും വരുന്നില്ല അല്ലെങ്കിൽ പാഴ് വസ്തുക്കൾ ഒന്നും വരുന്നില്ല എന്നതാണ് നമുക്ക് ഒരു ഭാഗത്ത് നിന്നുണ്ടാകുന്ന മാലിന്യങ്ങൾ അല്ലെങ്കിൽ പാഴ്വസ്തുക്കൾ മറ്റൊരു വിഭാഗത്തിൽ അത് ഭക്ഷണമായിട്ടൊ അല്ലങ്കിൽ മറ്റ് ആവശ്യങ്ങൾക്കൊ വേണ്ടി ഉപയോഗിക്കാവുന്നതാണ് മാത്രല്ല ഒരു മൃഗം വളർത്തുന്നതിൻ്റെ ഒപ്പം കൃഷിയും കൂടി ഉണ്ടെങ്കിൽ ഈ മൃഗങ്ങളുടെ വിസർജ്യങ്ങൾ മുതലായ കാര്യങ്ങൾ നമുക്ക് കൃഷി സ്ഥലങ്ങൾ വളരെ ഫലഭൂയിഷ്ടമാക്കാൻ വേണ്ടി ഉപയോഗിക്കാവുന്നതാണ് പിന്നെ കൃഷി കൃഷിയിൽ നിന്ന് കിട്ടുന്ന സസ്യാവശിഷ്ടങ്ങൾ ഈ മൃഗങ്ങൾക്ക് ഭക്ഷ്യവസ്തുക്കളായിട്ട് ഉപയോഗിക്കുന്നതും നല്ല ഗുണകരമായ ഒരു കൃഷി രീതിയാണ്